ഹലോ ഏ ആ കേൾക്കാം ആരാണ് ഇത്

ആ ജിമ്മാണ് ജിമ്മാണ് പറയു ആ പറയാലോ ഇതിപ്പം നിങ്ങളുടെ വീടെവിടായിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി അല്ലെ അപ്പോൾ നമുക്കിപ്പൊവിടെ സമയമെന്ന് പറയുന്നത് ഫുൾ ഡെ ഉണ്ട് രാവിലെ അഞ്ച് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് നമ്മുടെ ടൈമെന്ന് പറയുന്നത് ആ അത് കുഴപ്പോന്നുമില്ല നമുക്കിപ്പം രാവിലെ അഞ്ചു മണി തൊട്ട് നിങ്ങൾക്കെത്ര നേരം വരെ ചെയ്യണോ അത്ര നേരം വരെ അവിടെ ചെയ്യാവുന്നതാണ് കുഴപ്പോന്നുമില്ല ഫീസ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് ആറ് മാസത്തെ ആണ് അപ്പം ആദ്യം നമ്മൾ മുവായിരത്തഞ്ഞൂറ് രൂപ പേ ചെയ്യണം മുവായിരത്തഞ്ഞൂറ് രൂപ പേ ചെയ്തിട്ട് പിന്നെ മന്ത്ലീ ഒരു അഞ്ഞൂറ്റൻപത് രൂപ വെച്ച് മന്ത്ലി ഫീ ഉണ്ട് സ്പെഷ്യല് ഇതുപോലെ മൂവായിരത്തഞ്ഞൂറ് പിൻ പിന്നെ മന്ത്ലി വേറെ അഞ്ഞൂറ്റൻപത് രൂപ ആ എല്ലാ ദിവസവുമുണ്ട് എല്ലാ ദിവസവുമുണ്ട് സമയമതെ പോലെ തന്നെ നമുക്ക് ഒരു ഒന്നര മണിക്കൂറാണ് ഒരാൾക്കുള്ള ടൈമിങ് ആ ഒന്നര മണിക്കൂറ് നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാം പിന്നെ ഫീസ് നമ്മളിൻ്റെ ജിമ്മിലിപ്പോൾ മൂന്ന് ട്രെയ്നറ് അവൈലബ്ളാണ് ആ മൂന്ന് ട്രെയ്ന ആ അവൈലബ്ളാണ് ഉണ്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങുണ്ട് പിന്നെ ഓക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടെ മിസ്റ്റർ കോട്ടയമുണ്ട് പുള്ളി ചെയ്ത ചെയ്ത് തന്നോളും

ആ പുള്ളിക്കെസ്ട്രാ റ്റു തൗസൻ റുപ്പീസ് നമ്മൾ കൊടുക്കണം മാസം ഇത് ട്രെയ്നറെന്നെ പുള്ളിയെന്നെ പറഞ്ഞന്നോളും പുള്ളിക്ക് കാര്യങ്ങൾ ചാർട്ട് പുള്ളി പറഞ്ഞെന്നോളും പുള്ളിക്കാന്നേ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കാരണം പുള്ളി മിസ്റ്റർ കോട്ടയാതിലൊരാണ അപ്പോൾ പുള്ളിക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടറിയാം ആ ഏ സിയാണേസിയാണ് പക്ഷേ നമ്മളതിനനുസരിച്ച് ചാർജൊന്നും കൊടുക്കുന്നൊന്നുമില്ല കാരണം നമ്മൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാനാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ള ജിമ്മി നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ഏഴായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് പിന്നെ മാസം മാസം ആയിരത്തഞ്ഞൂറ് ആയിരത്തിരുന്നൂറും അതിന് മണ്ടയ്ക്കാണ് വാങ്ങിക്കുന്നത് ഏ സിയുള്ളത് പക്ഷേ നമ്മളത് കസ്റ്റമർ ഫ്രണ്ട്ലി ആക്കാനാണ് നമ്മൾ എന്നാ തുടങ്ങിയേക്കുന്നത് എന്താ നമ്മളതിന് ഫസ്റ്റൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ അടച്ചിട്ട് അഞ്ഞൂറ്റൻപത് രൂപ വെച്ച് മാസം അല്ലല്ലാ തുരുമ്പിച്ചതല്ലാ നമ്മൾ തുടങ്ങിട്ടിപ്പോൾ രണ്ട് അല്ല രണ്ട് രണ്ട് വർഷം ആയുള്ളു തുടങ്ങീട്ട് ഒന്നും അല്ല ഒന്നും അല്ല എല്ലാ നല്ല മെഷീൻസാ ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാണേൽ ചെയ്യുവാണേൽ ഒന്ന് പറയണം ഓക്കെ ഓക്കെ കെ